എൻ്റെ ജന്മനാടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ജന്മനാട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്നു വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കണ്ണൂർ ആണ് അപ്പോൾ കണ്ണൂർ അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷയും എല്ലാം വേറൊരു ടൈപ്പ് ആണ് എന്താപ്പ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക ഇപ്പം ഞാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ആണ് അപ്പം കോഴിക്കോടിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാടുണ്ട് നമുക്ക് ഇപ്പോൾ വലിയൊരു സിറ്റിയാണ് കോഴിക്കോടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പം കണ്ണൂരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ചെറിയ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവിടെ ജീവിക്കാൻ ഒക്കെ അടിപൊളിയായിട്ടാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടു സ്ഥലത്തെയും ഒരേ പോലത്തെ കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെയാണ് കാരണമെന്ന് വച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ കോഴിക്കോട് ജില്ലക്കാർക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിറ്റി കാര്യങ്ങളും ഒച്ചപ്പാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാകില്ല പിന്നെ അവിടെ എന്താ പറയുക ഇപ്പോൾ വെട്ടിന് വെട്ട് കുത്തിന് കുത്ത് അങ്ങനത്തെ ഒരു ഏരിയയാണ് കണ്ണൂർ ഭാഗമൊക്കെ പക്ഷേ കോഴിക്കോട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാ കാണാനും നല്ല രീതിയിലുള്ള നമുക്കിപ്പോൾ എന്ത് സാധനങ്ങളാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് ജില്ലയില് നമുക്ക് ഉണ്ട്